ഹലോ അതെ ഡോക്ടർ ഇല്ലേ ആ ഡോക്ടറേ എനിക്ക് ഇന്നലെ ഭയങ്കര ജലദോഷവും തലവേദനയും തുമ്മലൊക്കെയായിരുന്നേ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരണോ എങ്ങനെ അ മഴ നനഞ്ഞിരുന്നു ഇന്നലെ ഇങ്ങനെ പോയപ്പോൾ ബൈക്കിൽ പോയപ്പോൾ മഴ നനഞ്ഞിരുന്നു അ രാത്രിയായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇല്ല വീട്ടിലിപ്പോൾ അങ്ങനെയാർക്കും പ്രശ്നമൊന്നുമില്ല ഇന്നലെ വന്നുകഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് ജലദോഷവും തുമ്മലും തലവേദനയൊക്കെക്കൂടെ ആയി

ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഞാനപ്പോൾ അതാണ് ഡോക്ടറെ വിളിച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഇവിടെ അടുത്തുതന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്

ആ മൂക്കിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് അതായതീ അലർജി ഒക്കെ പോലെ എന്തെങ്കിലും ആയിരിക്കുമായിരിക്കുമല്ലേ ആ ഓക്കെ ആ ഓക്കെ ആണല്ലേ ആ അപ്പോൾ ഇത്ര ഇത് മാത്രം ചെയ്താൽ മതിയായിരിക്കുമല്ലേ പരീക്ഷിച്ച് നോക്കാനാണോ ഭക്ഷണത്തിന് ശേഷമല്ലേ മരുന്ന് കഴിക്കേണ്ടത് അ ഓക്കെ ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരുമല്ലേ ആ ഓക്കെ അപ്പോൾ അങ്ങോട്ട് വരുന്നതിന് മുൻപെന്തെങ്കിലും ബുക്ക് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ഓക്കെ എന്തായാലും ഞാൻ ആ എന്തെങ്കിലും ഞാൻ മരുന്ന് ഒന്ന് കഴിച്ചുനോക്കാം എന്നിട്ട് കുറവില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം ആയിക്കൊട്ടെ ഡോക്ടറേ ശരി എന്നാൽ